ഹായ് ഡോക്ടർ എൻ്റെ പേര് ലയാന്നാണേ ഞാൻ എൻ്റെ ഒരു ഒരു പ്രോബ്ലെം പറയാൻ വേണ്ടീട്ട് വന്നതായിരുന്നു ആ ഞാൻ ഒരു റിലേഷനിലായിട്ട് ഇപ്പം മൂന്ന് വർഷം ആയി മൂന്ന് മൂന്ന് വർഷം ആയി

ആ അതുൽ

ആദ്യം ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി ഈഗോ സംശയരോഗം അങ്ങനെ എല്ലാം തുടങ്ങി ഇപ്പം അതൊരു വലിയ പ്രശ്നത്തിൽ വന്ന് എത്തിയിരിക്കാണ്

അതെ

ആ ഉണ്ടായിരുന്നില്ല

മുന്നോട്ട് പോകണം

ആ എനിക്ക് ഇടയ്ക്കൊരു പ്രൊപ്പോസൽ വന്നിരുന്നു ആ ആ

ആ ഓക്കെ ഓക്കെ എനിക്ക് ഇതിനെടയ്ക്കൊരു പ്രൊപ്പോസൽ വന്നിരുന്നു അപ്പം ഞാൻ അത് പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ അത് തുടങ്ങിയായിരുന്നു പ്രശ്നങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയായിരുന്നു ഇങ്ങനെ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ട് ഞാൻ കൂടാതെ അങ്ങനെ ഒക്കെ പറഞ്ഞ് നടക്കയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ മടുത്തു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓ

ഓക്കെ മാം താങ്ക് യൂ ശരി

ഓക്കെ ഓക്കെ ശരി ശരി താങ്ക് യൂ മാം